ചിത്രാലയിലേക്ക് പ്രവേശിക്കുന്നത് സാധാരണ സംഭവിക്കുന്ന ചില വീഴ്ചകൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പം ചിലവരൊക്കെ അതായത് ഒര് ഒരറുപത് ശതമാനം ആൾക്കാരൊക്കെ കൂടുതലും ചിത്രരചനാ മത്സരങ്ങൾക്ക് അതായത് ചിൽസ് ചിത്രരചന പഠിക്കാനൊക്കെ പോയിട്ടുണ്ടാകുമല്ലോ അതിലൊരു നാൽപ്പത് ശതമാനം ആൾക്കാരും സ്വന്തം കഴിവുകള് അതായത് വീട്ടിൽ നിന്നുതന്നെ വരച്ച് പഠിച്ചിട്ട് അങ്ങനൊക്കെ ആയിരിക്കും പിന്നെ പഠിച്ചിട്ടുണ്ടാകുക അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം പിന്നെ ചിത്രകലയില് ഇപ്പം പ്രവേശിക്കണമെന്ന് അങ്ങനത്തെ അത് അത്കൊണ്ടന്നെ നമുക്കിങ്ങനെ മത്സരങ്ങളിലൊക്കെ പോവുമ്പം ചിലപ്പം അവര് വരയ്ക്കുന്ന പോലെ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല അതായത് പഠിച്ചവര് വരക്കുന്നതും പഠിക്കാത്തവര് ചിലപ്പോൾ വരയ്ക്കാൻ പറ്റി എന്ന് വരില്ല അതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് വീഴ്ചകള് കാര്യങ്ങളൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ എങ്ങനെ ഒഴിവാക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് അതായത് ഈ പഠിക്കാത്തവരൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ ഇപ്പം നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണൊന്നും ഇല്ലാത്തൊരു വീടുകള് വളരെ കുറവാണ് അതുകൊണ്ടുതന്നെ നമുക്ക് പിന്നെ ഫോണ് അതായത് ഫോണുള്ള അവരൊക്കേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ ജസ്റ്റ് സെർച്ചെയ്തിട്ടൊക്കെ പഠിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ അതായത് അതുകൊണ്ട് നമുക്ക് നല്ലവണം പരിശീലനം നമുക്കതത്യാവശ്യമാണ് അതു കൊണ്ടുതന്നെ നമുക്ക് പരിശീലനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് വിജയിക്കാൻ പറ്റുകയുള്ളു അപ്പം മെയിനായിട്ട് ചിത്ര രചന പഠിക്കുക അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്